ആ കേൾക്കുന്നുണ്ട് ആ നിങ്ങൾ എവിടെ വയനാട് ഇതിന്റെയല്ലേ ടൂർ പാക്കേജ്ൻ്റെ ആ ഓക്കെ ഓക്കെ ഞാനിവിടെ പാലക്കാട്ടുനിന്നാണ് വിളിക്കുന്നത് നമ്മളെ അവിടേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിപ്പോൾ മോസ്റ്റ്ലി ഈ വീക്കിൽ വരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഫാമിലിയായി ഫാമിലിയായിട്ട് ഫാമിലിയായിട്ട് അപ്പോൾ നമുക്ക് കുറച്ചൊരൂ ത്രീ ഓർ ഫോർ ഡെയ്സ് മാക്സിമം ഫോർ ഡെയ്സെ ഉണ്ടാവുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എങ്ങനെ ആ ത്രീ നൈറ്റ്സ് ആ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാക്സിമം പ്ലെയ്സസൊക്കെ ഒന്ന് കവറ് ചെയ്യാനും പറ്റിയൊരു എവിടെയൊക്കെ നമുക്ക് കവറ് ചെയ്യാം അവിടുള്ള സ്ഥലങ്ങൾ വന്ന് കഴിഞ്ഞാൽപ്പിന്നെ സ്റ്റേ യൻറ്റ് അക്കൊമഡേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഫെസിലിറ്റീസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ പാക്കേജിൽ അതൊക്കൊന്ന് ഡീറ്റൈൽഡ് ആയിട്ട് അറിയാനായിരുന്നു ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്

ആ മ്മ്

ആ ആ ഓക്കെ ഓക്കെ ആ ആ പിന്നെ പൂക്കോട് ലെയ്ക്ക് അടുത്താണോ അവിടെ ആ ഇതിപ്പോൾ നമുക്ക് നമുക്ക് ഇപ്പോൾ ട്രക്കിങ്ങൊക്കെ ഉൾപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റിയ പ്ലെയ്സ് ഓക്കെ ഓക്കെ പക്ഷെ അത് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വൈത്തിരിക്കടുത്താണോ ഇതീ തൊള്ളായിരം കണ്ടി എന്ന് പറയുന്നത് ഓ അത് ശരി അപ്പോൾ നമുക്ക് ഒരു അക്കൊമഡേഷൻ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആ പ്ലേയ്സസ് കവറ് ചെയ്യാൻ പറ്റിയൊരു അക്കൊമഡേഷൻ നമുക്കൊരു ഒരു റിസോട്ട് ആ അത് നമുക്ക് വിത്ത് പൂളോട് കൂടിയിട്ടുള്ള റിസോട്ടാണ് നമ്മളുദ്ദേശിക്കുന്നത് അതെല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണോ എങ്ങനെയാണ് പർ ഡേയ്ക്കൊക്കെ മ്മ് ഓ ആ റെയ്ഞ്ച്ലുള്ള പാക്കേജാണല്ലേ ഇങ്ങനെ ആ അത് ശരി നമ്മളൊരു നാ എങ്ങനെ ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ പിന്നെ അവിടുന്നുള്ള എങ്ങനെയാണ് ഓരോ പ്ലെയ്സീ കൊണ്ട് പോകുന്നത് നിങ്ങളുടെ വണ്ടിയിലാണോ അതോ ആ അത് ഓക്കെയാണല്ലേ അത് ശരി നമ്മൾ കുറുവാദ്വീപ് എന്നോ പണ്ടൊരിക്കലെങ്ങാണ്ട് അവിടെ വന്ന് കണ്ടിരുന്നു കുറുവാദ്വീപ് അത് മോസ്ലി ഇപ്പം ആ ടീമുണ്ടോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ ഏറ്റവും ആ എടക്കൽ ഗുഹ അവിടെ എവിടെയാ അത് സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് സ്പോട്ട് വരുന്നത് എടക്കൽ ഗുഹ ആ അമ്പലവയൽ അല്ലേ ഓക്കെ ഓക്കെ എന്തായാലുവെ ഓ ശരി ശരി ശരി അപ്പം എന്തായാലും ഞാനിതൊക്കെ ഒന്ന് നോക്കിയിട്ടെ ഒന്ന് സംസാരിച്ചിട്ട് ഞങ്ങളാ ഡെയ്റ്റ് എന്നെക്ക്യാ പോവാൻ പറ്റുക എന്നുള്ളതൊന്ന് നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഒന്ന് വിളിക്കാം മ്മ് ഓക്കെ ശരി എന്നാൽ